എനിക്ക് ഏറ്റവും ഇഷ്ടപെട്ട മീനുകളെന്നു പറയുമ്പോൾ ചെമ്മീൻ ഉണ്ട് സ്രാവ് ഉണ്ട് പിന്നെ കൂന്തൽ അതൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ വറുത്തും പൊരി ഇതൊക്കെയാക്കി കരി കഴിക്കാണെങ്കിൽ നല്ല ടേസ്റ്റുള്ളൊരു മീനാണ് കറിവെക്കാന് സ്രാവ് കറിവെക്കാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് സ്രാവ് പറ്റിച്ച് കറി വെക്കുകയാണെങ്കിൽ തന്നെ നാലഞ്ച് ദിവസം നമുക്ക് വേറെ കഷ്ണങ്ങൾ വച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാൻ നല്ല ഒരു ഇതാണ് അതുപോലെ നമുക്കിവിടെ സുഭലമായി കിട്ടുന്നത് എന്നുപറയുമ്പോൾ ഈ മത്തി ചാ അയില അങ്ങനത്തെ മീനാണ് പക്ഷേ അത് എല്ലാ ദിവസവും ഡെയ്ലി മേടിക്കുന്ന ആൾക്കാരും ഉണ്ട് പിന്നേ വല്ലപ്പോഴും മേടിക്കുന്ന ആളുണ്ട് ഈ ചെമ്മീനും സ്രാവെന്നു പറയുന്നത് നമ്മൾ ഡെയ്ലി മേടിക്കുകയില്ല വല്ലപ്പോഴും ഒരു ഇതിന് വേണ്ടി നമ്മൾ മേടിക്കൂന്നേള്ളൂ പിന്നെ പല പല വേറേ മീനുകളൊക്കെയുണ്ട് പക്ഷേ എല്ലാവർക്കും അത് താല്പര്യം ഉണ്ടായെന്നുവരില്ല എല്ലാവർക്കും ഒരേപോലെ ആവുകയില്ലല്ലോ എനിക്ക് ഇഷ്ട്ടം ഈ പറയുന്ന പോലെ സ്രാവ് മീൻ ചെമ്മീന് അങ്ങനെയുള്ള മീനുകളാണ് പിന്നെ വളർത്തു മീനുകളിൾ ഇപ്പം പറയാണെങ്കിൽ നക്റ്ററ് അതുപോലെ പിലോപ്പി അതൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയില് നമുക്ക് നല്ല റ്റേസ്റ്റോടെ വറക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രസമായിരിക്കും